ഹലോ സാർ പാൻ കാർഡ് ഓഫീസ് അല്ലേ സാറേ സാറേ ഞാൻ ജോർജ് കുട്ടിയാണ് എന്റെ പാൻ കാർഡിന്റെ ഇതുവരെയും ഞാൻ അവിടെ തന്നിട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല അത് എൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് പത്ത് അഞ്ച് അമ്പത്തൊന്ന് അതെ നമ്പർ തിരിച്ചറിയൽ നമ്പർ ആണ് തന്നിരിക്കുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റേഴ് അപ്പം അത് ശരി ആയിട്ടുണ്ടോ സാറേ അപ്പം ഈ ആഴ്ച്ച അയയ്ക്കുമോ ശരി താങ്ക് യു സാർ